ഹലോ ഡോക്ടറല്ലേ ആ എൻ്റെ പേര് ഷീബ എനിക്ക് മൂന്നു നാല് ദിവസമായിട്ട് പനിയാണ് പനിയും തലവേദന തൊണ്ട വേദനയൊക്കെയാണ്

ഇല്ലില്ല ആർക്കും പനിയൊന്നും ഇല്ല ആ ഇല്ലയില്ല നനഞ്ഞിട്ടൊന്നുവില്ല ആ ഞാൻ പച്ച വെള്ളമാണ് കുടിക്കാറ് ആ ഞ ഇല്ല ഞ ഞെ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ പച്ച വെള്ളം കുടിക്കുന്ന ആളാണ്

ഓക്കേ ഓക്കേ ആ ഇപ്പോൾ എന്തെങ്കിലും ചെക്കപ്പ് ചെക്കപ്പ് ചെയ്യാൻ വേണോ മൂന്ന് ദിവസം

കഴിച്ചില്ല ഞാൻ ചെറിയ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചൂ ചെയ്തുള്ളൂ കുറച്ച് ആവിയൊക്കെ പിടിക്കുകയേ ചെയ്തുള്ളൂ

രാത്രിയില് കൂടുതല് നന്നായിട്ട് പനിക്കുന്നുണ്ട് പനിച്ചങ്ങ് വിയർക്കുവൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പകല് കുറവാണ് ജലദോഷം തൊണ്ട വേനയൊക്കെ ഉണ്ട് ആ ഓക്കെ താങ്ക് യു ആയി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി